ഹായ് ഞാൻ നിങ്ങളെ വിളിച്ചത് ഒരു കാര്യം അറിയിക്കാന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിങ്ങളുടെ കമ്പനിയില്ന്ന് ഈ ഇടയ്ക്ക് ഒരു കണ്ണാടി ഓഡറീയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു ദിവസം മുന്നേ സാധനം വീട്ടിലെത്തിയിട്ടേ ഉള്ളു അപ്പോള് ഞാന് കണ്ണാടി പൊളിച്ചു നോക്കിയപ്പോള് അത് വച്ചിരിക്കുന്ന പാക്കേജിങ് ഭയങ്കര മോശമായിരുന്നു കണ്ണാടി പോലുള്ളൊരു സാധനം ഡെലിവറി ചെയ്യുമ്പോള് അതിൻ്റെ പാക്കേജിങ് കറക്റ്റ് ആണോ എന്നെങ്കിലും നിങ്ങള് നോക്കേണ്ടതല്ലേ കാരണം അത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഞാന് പൈസ കൊടുത്തിട്ടായിരിക്കും ഈ പാക്കേജ് ഓപ്പൺ ചെയ്തു നോക്കുന്നത് അപ്പോള് എനിക്കത് നഷ്ടമായിരിക്കും ഉണ്ടാക്കുക നിങ്ങളുടെ ഓൺലൈൻ ഓൺലൈൻ കമ്പനി നല്ലതാണ് എന്ന് ആള്ക്കാര് പറഞ്ഞതുകൊണ്ടാണ് ഞാന് ആ കമ്പനി പ്രിഫറീതത് അതുതന്നെ വാങ്ങിയത് അപ്പോള് പാക്കേജിങ് നോക്കുമ്പോഴത്തേക്കും അത് മോശമാണ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാല് ഞാനെങ്ങനെ വീണ്ടും അവിടുന്ന് തന്നെ സാധനം വാങ്ങുന്നേ ഇപ്പോള് അത് നിങ്ങളുടെ കുറ്റമാണോ അതോ ഡെലിവറി ചെയ്ത ആൾക്ക് പറ്റിയ മിസ്റ്റേക്കാണോ അതെനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ എന്നാലും ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് ഞാന് പറയണമല്ലോ ഞാൻ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയണമല്ലോ എന്നാലല്ലേ നിങ്ങളുടെ കസ്റ്റമർ സർവീസ് നന്നായിരിക്കുള്ളൂ അപ്പോള് ആ കണ്ണാടി കുറച്ചുകൂടെ ഒന്നു നന്നായിട്ട് നിങ്ങള്ക്ക് പൊതിഞ്ഞ് തരാമായിരുന്നു എവിടേലും തട്ടുകയോ ഇടിക്കുകയോ ചെയ്തിരുന്നെങ്കില് കണ്ണാടി പൊട്ടിയേനേ ഞാനത് അറിയത്തും ഉണ്ടാവില്ലായിരുന്നു അപ്പോള് ഞാനത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കാന് വേണ്ടിയിട്ട് ഞാന് വിളിച്ചതാണ് എനിക്ക് ആ കണ്ണാടിക്ക് സൈഡില് ചെറിയ പോറലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോള് എനിക്ക് റീഫണ്ട് കിട്ടുമോന്ന് അറിയാന് വേണ്ടി ആയിരുന്നു അങ്ങനെ റീഫണ്ട് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു സൈഡ് ചെറിയ പൊട്ടൽ ഉണ്ടെങ്കിലും അത് പൊട്ടലാണല്ലോ അപ്പോള് ഒരു റീഫണ്ട് ഞാന് പ്രതീക്ഷിക്കുന്നുണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന നിലയ്ക്ക് ഒരു റീഫണ്ട് ഞാന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോള് അതിനെക്കുറിച്ച് എങ്ങനെ ആണെന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കണം